സെലിബ്രിറ്റിസ് എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു വരുമ്പോൾ വാർത്തകളില് മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരം അതിപ്രസരണം ആയിട്ട് അവരെ കരിവാരിത്തേച്ച് കാണിക്കത്തക്ക രീതിയിലുള്ള ഭയങ്കര പ്രകടനങ്ങളാണ് കാഴ്ചവയ്ക്കുന്നത് അവരുടെ സ്വകാര്യതയിലൊക്കെ ഭയങ്കരം കടന്നുകയറ്റമാണ് മാധ്യമങ്ങൾക്കൊക്കെ അത് അവരെ ഒരുമാതിരി തൃണവൽക്കരിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയാണേ വാർത്ത മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആ ആൾക്കാരൊക്കെ സംസാരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ അവരെ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ തരംതാഴ്ത്താം എന്നുള്ള രീതിയിലാണ് അവരെ എത്രേ നീചമായിട്ട് കാണാമോ അതുപോലെയാണ് നമ്മളിപ്പോള് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിലിപ്പോള് അവരും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരല്ലേ അവർക്കും അവരുടേതായ സ്വകാര്യതകളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ചിക്കിച്ചികഞ്ഞ് വെളിയിലെടുക്കേണ്ട ആവശ്യം ഈ മാധ്യമപ്രവർത്തകർക്കുണ്ടോ അത് തെറ്റായ ഒരു കാര്യമല്ലേ മാധ്യമം ഒക്കെ നല്ലതുതന്നെയാണ് എല്ലാം നല്ലതൊക്കെയാ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോള് അത് ഭയങ്കരം ഒരു അവരെ ഹേട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈ ലോകത്തിലിപ്പോള് നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്നാണെന്ന് പറഞ്ഞാല് ഇപ്പോള് ഓരോ താരാങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിട്ട് എന്തെങ്കിലും ഒക്കെ നെഗറ്റീവ്സൊക്കെ കാണുമായിരിക്കും അതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി മറ്റുള്ളവരുടെ മുന്നിലിട്ട് അവരെ റേറ്റിംഗ് കൂട്ടാനോ അല്ലെങ്കില് എന്തെങ്കിലും ആൾ സമൂഹത്തിന് മുന്നിലിട്ട് അവരെ അവഹേളിക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്താമാധ്യമങ്ങളിലാണേലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഓരോ ഒത്തിരി അതിപ്രസരണങ്ങളാണ് ഇപ്പോള് ഒത്തിരി കാര്യങ്ങളെ കുറിച്ചും എന്ന ആവശ്യമുള്ളതിനെ കുറിച്ചൊട്ടും ആരും സംസാരിക്കുന്നുമില്ല അനാവശ്യമായ കാര്യങ്ങളാണ് കൂടുതലായിട്ടും മാധ്യമങ്ങള് വലിച്ചുനീട്ടി കൊണ്ടുപോകുന്നത് താരങ്ങളുടെ കാര്യം എടുത്തു പറയുമ്പോള് അങ്ങനെ ഒത്തിരി താരങ്ങള്ക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അത് ഇങ്ങനെ മാധ്യമങ്ങളിൽ ഇട്ടു വലിച്ചിഴയ്ക്കേണ്ട കാര്യമുണ്ടോ അത് അത്ര ശരിയായ ഒരു രീതിയാണെന്ന് തോന്നുന്നില്ല ആ എല്ലാവർക്കുണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ്സുമൊക്കെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുമുണ്ട് അപ്പോള് നമ്മളാസ്ഥാനത്ത് ഇരിക്കുന്നതെങ്കില് നമ്മളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയെ ആ ഒരു രീതിയില് വേണം ആരാണേലും നമ്മള് അഭിമുഖീകരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കില് അത് അവര് പറയുന്നതു കൂടാതെ പിന്നെയും ചിക്കിച്ചികഞ്ഞ് ചിക്കിച്ചികഞ്ഞ് കുത്തിപ്പൊക്കി എടുക്കുക എന്നുള്ളത് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു സവിശേഷതയാണ് അവരത് അതത് വലിയ കാര്യമായിട്ടാണ് അവര് അത് അതിനെ കാണുന്നത് പക്ഷേ അതൊക്കെ നല്ല ഒരു രീതിയാണെന്നു തോന്നുന്നില്ല അത് മോശമായ ഒരു രീതി തന്നെയാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാർക്കും മനസ്സ് എന്നൊരു സാധനമുണ്ട് എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോള് മാനസികമായിട്ടൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും നമ്മളപ്പോള് അതനുസരിച്ച് അവരോട് സംസാരിക്കാനും പെരുമാറാനും പഠിക്കണം എന്തും പറയാമെന്നുള്ളയൊരു വേദി അല്ലല്ലോ ഈ മാധ്യമം എന്നു പറയുന്നത് സോഷ്യൽ മീഡിയ എന്നു പറയുന്നത് എന്തും പറയാന്നുള്ള ഒരു വേദിയല്ല അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു നല്ല രീതിയിലൊരു രീതിയിലൊന്ന് സംസാരിക്കാനും അവർക്ക് ഹർട്ട് ചെയ്ക്കാത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയുവാനൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും